എനിക്കിപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഹിമാലയത്തിലേക്ക് ഒരു ട്രിപ്പ് പോകണമെന്നാണ് എൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹം തന്നെയാണ് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഹിമാലയൻ എന്നു പറയുന്ന ബൈക്കുതന്നെ വാങ്ങിയത് എനിക്ക് അത്രയും ലോങ്ങ് ട്രാവല് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഇപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോവാണ്ട് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ക്യാഷ് ആക്കി അറേഞ്ച് ചെയ്ത് എന്നിട്ടുവേണം എനിക്ക് ഹിമാലയം വരെ സോളോട്രിപ്പ് പോകണം എന്ന് ആണ് ഒറ്റ ഒര് സ്ട്രെച്ചിൽത്തന്നെ എനിക്ക് അങ്ങോട്ട് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ട് ഒറ്റയ്ക്ക് പോകണം എന്നാണ് എൻ്റെയൊരു ആഗ്രഹം അപ്പം നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്നുപോയി അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നല്ല രീതിയ്ക്ക് എന്താ പറയുക ഇങ്ങനെ കണ്ടിട്ട് വരണം എന്നാണ് എൻ്റെയൊരാഗ്രഹം

അപ്പോൾ അവിടെ എത്തിയതിനുശേഷം എന്താ പറയുക ഞാൻ വളരെ ഹാപ്പിയായിരിക്കും കാരണം എൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം എന്നുുള്ളത് അപ്പോൾ അത് ഞാൻ നല്ല രീതിയ്ക്കുതന്നെ നോക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഈ ജോബിൽ നിന്ന് കിട്ടുന്ന ക്യാഷൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് സേവ് ചെയ്ത് സേവ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് ഞാൻ ഉദ്ദേശിച്ച ഒരു ഫണ്ടായിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ ബൈക്കുമായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ എത്തിപ്പെടുമെന്നാണ് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടുമെന്നാണ് എൻ്റെയൊരു പ്രതീക്ഷ